ഇന്ന് ഈ കാലത്ത് നമ്മൾ വസ്ത്രം കഴുകാൻ ഏറ്റവും ഈ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉപയോഗിക്കാൻ വാഷിങ്മെഷീൻ വഴിയാണ് ഇന്ന് എല്ലാ വീടുകളിലും സുപരി സുപരിചിതമായി വരുന്നതും വാഷിംഗ് മെഷീൻ തന്നെയാണ് കാരണം നമുക്കത് സമയം ലാഭമാണ് സമയ ലാഭമാണ് ഇന്ന് എല്ലാവർക്കും ഈ തിരക്കുപിടിച്ച ജീവിതത്തിൽ വേണ്ടത് അതുകൊണ്ടുതന്നെ വാഷിങ്മെഷീൻ ആണ് എല്ലാവരും ഉപയോഗിക്കുന്നത് വാഷിംഗ് മെഷീൻ പതിനഞ്ച് മിനിട്ടോ അല്ലെങ്കിൽ ഒരു മുപ്പത് മിനിറ്റ് കൊണ്ട് നമുക്ക് നമ്മുടെ വസ്ത്രങ്ങൾ കഴുകി ഉണക്കി നമുക്ക് അത് തരുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് എമൗണ്ട് വാട്ടർ ആണ് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നാം ഇപ്പോൾ എന്നാൽ പഴയ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് കൂടുതൽ വെള്ളം നഷ്ടമാവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇന്ന് ഇക്കാലത്ത് ഉപയോഗിക്കുന്നത് വാഷിംഗ് മെഷീൻ ആണ് വാഷിങ്മെഷീൻ നമ്മൾ ഡ്രസ്സ് ജസ്റ്റ് ഇട്ട് പിന്നെ നമ്മൾ സോപ്പുപൊടിയിട്ട് അത് കഴുകി ഉണക്കി വരും എന്നാൽ പഴയകാലത്ത് നമ്മൾ വെള്ളം എടുത്ത് രണ്ടു മൂന്നു തവണ ബക്കറ്റ് വെള്ളം എടുത്തു അതുകഴിഞ്ഞ് അത് നമ്മൾ തിരുമ്മി ഉണക്കി വെയിലുള്ള സമയത്താണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും അല്ലാത്ത സമയത്താണെങ്കിൽ നമ്മൾ ഉണങ്ങാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് തന്നെ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് എമൗണ്ട് വാ വെള്ളം ഉണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് വേഗത്തിൽ എളുപ്പത്തിലും നമുക്ക് കഴുകി ഉണക്കി എടുക്കാൻ പറ്റും